ഇപ്പോൾ മലബന്ധം ഉണ്ടായാൽ ഒക്കെ നമ്മുടെ നാട്ടില് ഇപ്പോൾ കൂടുതലും ചെയ്യുന്ന വീടുകളിൽ ഒക്കെ ചെയ്യുന്ന എന്ന് പറയുന്നത് നമ്മള് ചെറുപഴം കഴിക്കും അതുപോലെ രാവിലെ ചൂടുവെള്ളം അല്ലെങ്കിൽ കട്ടൻചായ കുടിക്കുന്ന ഒക്കെ കോൺസ്റ്റിപേഷന് നല്ലതാണ് പിന്നേ ചെറിയ ചെറിയ ആയുർവേദ പൊടി കൈകൾ ഒക്കെ ചെയ്യാറുണ്ട് നാട്ടു വൈദ്യം അവര് പച്ചമരുന്നുകളൊക്കെ ഇലകളൊക്കെ അരച്ചിട്ടൊക്കെ ചെയ്യും കൂടുതലും നമ്മള് ചെറുപഴങ്ങള് അങ്ങനെയുള്ള ചെറുപഴം കഴിക്കുന്നത് ഒക്കെ നല്ലതെന്നാണ് കേട്ടിരിക്കുന്നത്